വാര്ത്തകളിൽ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ ചര്ച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെന്നു പറഞ്ഞാൽ കോവിഡ് കാലഘട്ടങ്ങളിൽ കോവിഡിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലായിരുന്നു പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് പ്രളയമായിരുന്നു എന്താണോ ആനുകാലികമായിട്ടു സംഭവിക്കുന്നത് ആ കാര്യങ്ങളാണ് കൂടുതലും വാര്ത്തകള് ചര്ച്ച ചെയ്യപ്പെടുന്നത് പിന്നെ ഉരുള്പൊട്ടലും മറ്റു പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ ആ കാര്യങ്ങൾ ചര്ച്ചയിൽ ചെയ്യപ്പെടുകയുണ്ടായി അതിനോടൊപ്പം തന്നെയും മാധ്യമങ്ങളും മറ്റും നിരന്തരം ഉയര്ത്തിക്കാട്ടുന്ന മറ്റു വിഷയങ്ങളാണ് രാഷ്ട്രീയ പാര്ട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഓരോ രാഷ്ട്രീയ പാര്ട്ടിയും അവരവര്ക്ക് അവരവരുടെ കാര്യങ്ങൾ അവരവരുടെ ടെ സ്റ്റാറ്റസ് നിലനിര്ത്താന് വേണ്ടി അവരവരുടെ പ്രശ്നങ്ങൾ അവരവർ ഉയര്ത്തിക്കാട്ടുകയും ചെയ്യുന്നത് മറ്റ് പിന്നെ മറ്റൊരു പ്രശ്നമെന്നു പറയുന്നത് സെക്ഷ്വൽ അബ്യൂസ്മെന്റിനെപ്പറ്റിയുള്ള ചര്ച്ചകളാണ് കൂടുതലും ഇടക്കാലത്ത് വെച്ച് ഹേമാ കമ്മിറ്റി റിപ്പോര്ട്ടുകളെല്ലാം ഭയങ്കര ചര്ച്ചയായി ആ ചര്ച്ചയെത്തുടര്ന്ന് പല സമൂഹത്തിലെ നമ്മളെല്ലാവരും വളരെ ആരാധനയോടെ കണ്ടിരുന്ന പലരും പ്രതിസ്ഥാനത്തെത്തുകയുണ്ടായി കുറേക്കാലം ആ സംഭവങ്ങൾ ചര്ച്ച ചെയ്തു എന്റെ അഭിപ്രായത്തിൽ ഞാന് പറയുന്നത് കാലാകാലങ്ങളിലെന്താണോ സംഭവിക്കുന്നത് ആ വിഷയങ്ങളാണ് കൂടുതൽ ചര്ച്ച ചെയ്യപ്പെടുന്നത് പിന്നെ വാഹനാപകടങ്ങൾ പിന്നെ കുട്ടികള്ക്ക് നേരെയുണ്ടായുന്ന അതിക്രമങ്ങൾ സ്ത്രീകള്ക്കു നേരെയുണ്ടാകുന്ന അതിക്രമങ്ങൾ ഇതെല്ലാം ചര്ച്ച ചെയ്യുന്നു ചര്ച്ച ചെയ്യപ്പെടുന്ന ഒരു വസ്തുക്കളാണ് പിന്നെ മദ്യത്തിന്റെയും മയക്കു മരുന്നിന്റെയും ഉപയോഗം മദ്യവും മയക്കു മരുന്നും സമൂഹത്തിനെയെങ്ങനെ വെക്കുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് കുഞ്ഞ് തലമുറകളാണ് അതായത് പൊടിക്കുട്ടികൾ കുഞ്ഞ് കു കുട്ടികൾ മുതൽ ചെറുപ്പക്കാരാണിതേറ്റവും കൂടുതലുപയോഗിക്കപ്പെടുന്നത് ഇത് ഈ കാര്യങ്ങളെല്ലാം പത്രങ്ങൾ ചര്ച്ച ചെയ്യാറുണ്ട് പിന്നെ അതാത് കാലത്തെ എന്താണോ അതാത് ദിവസം എന്താണോ സംഭവിക്കുന്നത് അത് റേഡിയോയിലായാലും ടീ വിയിലായാലും സോഷ്യല് മീഡിയാസിലായാലും ചര്ച്ച ചെയ്യുക ചെയ്യപ്പെടാറുണ്ട് ഇന്ന് നമ്മളേറ്റവും കൂടുതൽ ചര്ച്ച് ചെയ്യുന്ന ചര്ച്ച ചെയ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നത് മുനമ്പം പ്രശ്നത്തെപ്പറ്റിയാണ് അതുപോലെ പാലക്കാട് കുഴല്പ്പണം പിടിച്ച സംഭവവും ഇതെല്ലാം നമ്മൾ ചര്ച്ച ചെയ്യുന്നുണ്ട് ചാനലുകൾ തുറന്ന് നോക്കിയാലും ഇതു തന്നെയാണ് നമ്മൾ ചര്ച്ചയില് കാണപ്പെടുന്നത് പിന്നെ ഇന്നത്തെ ചര്ച്ചാവിഷയമായിട്ടുള്ള മറ്റു പ്രശ്നമാണ് മറ്റൊരു സമാ കാലിക പ്രശ്നമാണ് അമേരിക്കയിലെ പ്രസിഡന്ഷ്യല് നട പ്രസിഡന്റ് തിരഞ്ഞെടുപ്പില് നടത്തിയ തിരഞ്ഞെടുപ്പും ഡൊണാ ഡൊണാള്ഡ് ട്രംപിന്റെ വിജയവുമെല്ലാം ചര്ച്ചപ്പെ ചര്ച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് കൂടുതലും എനിക്ക് തോന്നുന്നത് പത്രങ്ങളിൽ മാധ്യമങ്ങളിലായാലും ചര്ച്ച ചെയ്യപ്പെടുന്നത് രാഷ്ട്രീയ പ്രശ്നങ്ങള് തന്നെയാണ് കൂടുതലും ചര്ച്ച ചെയ്യപ്പെടുന്നത് പിന്നീട് ചര്ച്ച ചെയ്യപ്പെടുന്ന മറ്റു പ്രശ്നമെന്നു പറഞ്ഞാൽ എന്താണോ സമൂഹത്തിൽ ജനങ്ങളേറ്റവും കൂടുതൽ എഫെക്റ്റ് ചെയ്യുന്നത് ആ കാര്യങ്ങൾ കാലാകാലങ്ങളിലുണ്ടാകുന്ന കാര്യങ്ങളവിടെ സ് ചര്ച്ച ചെയ്യാറുണ്ട് അതിൽ സമൂഹത്തിലെ പല തരത്തിലുള്ള ജനങ്ങളും ഇതിനകത്ത് പാര്ട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് എന്നാണ് മനസ്സിലാക്കാന് കഴിയുന്നത് എന്തായാലും സോഷ്യല് മീഡിയാസ് വന്നതോടു കൂടി നമുക്ക് വളരെയധികം നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടു വരാന് കഴിഞ്ഞു മാറ്റങ്ങളെന്നു പറയുമ്പോഴത്തേന് വളരെ എന്താ നമ്മുടെ വിരല്ത്തുമ്പിൽ ലോകം നമ്മുടെ വിരല്ത്തുമ്പിലായി മാറി ലോകത്തിന്റെ ഏതു ഭാഗത്തു നടക്കുന്ന കാര്യങ്ങളും നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു റിമോട്ട് കണ്ട്രോളിന്റെ സഹായത്തോടെ നമുക്ക് ചാനലുകൾ മാറ്റി മറിച്ചു കാണാനായിട്ട് സാധിച്ചു സാധിക്കുന്നു സാധിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാം മാധ്യമ രംഗത്തുണ്ടായ വിപ്ലവകരമായ മാറ്റമായിട്ടെനിക്ക് തോന്നുകയാണ് പണ് ലത്ത് ആശയങ്ങള് കൈമാറാന് വേണ്ടി കിലോ മീറ്ററുകള് ദൂരം സഞ്ചരിച്ച് മരണ കാര്യങ്ങളായാലും കല്യാണക്കാര്യങ്ങളായാലും മറ്റുള്ളവരെ അറിയിച്ചിരുന്ന നാം ഇപ്പോളൊരു ഫോണ് കോളില് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന് ഒന്നായിട്ടെനിക്കു തോന്നുന്നു അത് നമ്മുടെ സൗഹൃദം ത കുറയ്ക്കാനായിട്ട് കാരണമാകുന്നു ബന്ധങ്ങൾ ബന്ധങ്ങള് കുറയ്ക്കാനായിട്ട് കാരണമാകുന്നു തൊട്ടയല്പ്പക്കത്തുള്ള ആള്ക്കാരെപ്പോലും തിരിച്ചറിയാന് പറ്റാത്തൊരവസ്ഥയായിട്ട് തൊട്ടയല്പ്പക്കത്തെ വീട്ടിലെന്തു സംഭവിച്ചാലും ഒന്നും എന്നെ ബാധിക്കുന്നതല്ലയെന്നുള്ളൊരു ചിന്ത വരെ സമൂഹത്തിൽ വന്നു കഴിഞ്ഞു എന്തായലും മാധ്യമങ്ങളിലെന്റെ അഭിപ്രായത്തിൽ മാധ്യമങ്ങള് നിരന്തരം ഉയര്ത്തിക്കാട്ടുന്ന പ്രശ്നമെന്നു പറഞ്ഞാൽ ഓരോ രാഷ്ട്രീയ പാര്ട്ടിയുടെയും തമ്മിലുള്ള ചേരി തിരിഞ്ഞുള്ള ആക്രമങ്ങളും വെല്ലുവിളികളും ര ഓരോ ഭരണപ്പ പാര്ട്ടിയും വരുമ്പോൾ അവർ മുൻപോട്ടു വെക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് കാണാനായിട്ടു സാധിക്കുന്നത് എന്നിരുന്നാലും സാംസ്കാരിക വിഷയങ്ങളിലും സാമൂഹിക വിഷയങ്ങളുമെല്ലാം പത്രമാധ്യമങ്ങളിൽ ഇന്നും വളരെ വലിയ വാര്ത്തയാകുന്ന ഒരു കാര്യം തന്നെയാണെന്ന് നിസ്സംശയം നമുക്ക് പറയാനായിട്ടു സാധിക്കും പത്രങ്ങള് പത്രങ്ങളും റേഡിയോയിലും മറ്റു സാംസ്കാരിക വിഷയങ്ങളെപ്പറ്റി ചര്ച്ച ചെയ്യപ്പെടാറുണ്ട് അത് പല കാര്യങ്ങളും നമ്മൾ മാധ്യമങ്ങളിലൂടെ നമുക്ക് മറ്റ് വായിക്കാനും സാധിക്കുന്നുണ്ട്